പന്ത്രണ്ട് ഫെബ്രുവരി മാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇരുപത് മെയ് മാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പതിനാല് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തി രണ്ട് ജൂൺ മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇരുപത് ജൂൺ മെയ് മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്